ആ ഹോളിഡേ ട്രാവൽ ഏജൻസി അല്ലെ അതെ ഞാൻ ആർച്ചയാണ് സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് ഡിസംബർ ഇരുപത്തിരണ്ടാന്തി ഞാൻ നിങ്ങൾടെ ഏജൻസിയിൽ നിന്നൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ കഴിഞ്ഞ തിങ്കളാഴ്ച ഈവെനിംഗിലായിരുന്നു അതെ ആ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് ഒരു ഫീഡ്ബാക്ക് തരാനായിട്ടാണ് വിളിച്ചത് ഞാൻ നിങ്ങളുടെ ക്യാബ് ബുക്ക് ചെയ്ത യാത്ര ചെയ്തതിൽ തൃപ്തയല്ല കാരണം കുറച്ച് എനിക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് ഞാൻ യാത്ര ചെയ്തപ്പോൾ ഡ്രൈവർ മാസ്ക് ധരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ കോവിഡ് സാഹചര്യമൊക്കെയാണ് അപ്പോൾ മാസ്ക് ധരിക്കാതെയാണ് വന്നത് ഞാൻ കുറച്ച് പ്രാവശ്യം നിർബന്ധിച്ചപ്പോളാണ് അയാള് മാസ്ക് ധരിച്ചത് അതുവരെയും മാസ്ക് ധരിക്കാതെയാണ് ഇരുന്നത് മാത്രമല്ല സീറ്റൊക്കെ വൃത്തിഹീനമായിട്ടാണ് കിടന്നത് ഒട്ടും തൃപ്തയല്ല ഞാൻ മുന്നേ യാത്രചെയ്തിരുന്നവർ ഉപയോഗിച്ചിരുന്ന സ്നാക്സിൻ്റെ ബാക്കി വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു പൊടിയുണ്ടായിരുന്നു അത്കൊണ്ട് ഞാൻ ഒട്ടും തൃപ്തയല്ല

അതെ അതെ ഡ്രൈവറിനോട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് മാസ്ക് ധരിക്കണം എന്ന് അപ്പോൾ ആദ്യം ആള് ഇല്ല അതിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാരും മാസ്ക് വെക്കാതെ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ന്യായികരണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ആരോഗ്യം നോക്കിയേ പറ്റു അപ്പോൾ അത് എനിക്ക് പറ്റില്ല ദയവ്ചെയ്ത് വെക്കണം എന്ന് ഞാൻ അങ്ങോട്ട് അപേക്ഷിച്ചപ്പോഴാണ് അയാള് വെച്ചത് ആ അതെ ഓക്കേ ഞാൻ അതില് അതിലോര് പരാതികൂടെ പറയാനാണ് വിളിച്ചത് ആ ഓക്കേ ഇനി അത് ഉണ്ടാകാതെ ഇരുന്നാൽ മതി ശരി ശരി